ഹലോ ഡോക്ടർ അല്ലേ എനിക്ക് ഞാൻ അമൽ ആയിരുന്നു എനിക്ക് വല്ലാണ്ട് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അറിയാൻ വേണ്ടി ടെംപറേച്ചർ ഒരു നൂറ് നൂറ് ഡിഗ്രീയുടെ അടുത്തുണ്ട് കൊച്ചിന് പനിയുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആണോ എന്ന് അറിയില്ല പിന്നെ ഞാൻ ഇന്നലെയൊന്ന് മഴയത്തും കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണൊന്നും അറിയില്ല ഇല്ല നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല

ആ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളില് എലിപ്പനി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്

അ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ഇടക്ക് വയറുവേദന എടുക്കുന്നുണ്ട് ഇടക്ക് ചിലസമയങ്ങളില് അ ഇടക്ക് ഇടക്ക് ശർദ്ദിക്കാൻ വരലുണ്ട് അ വയറിളക്കവുണ്ട്

അ ഓക്കെ ഹോസ്പിറ്റലിലേക്കോ എവിടെയായിരുന്നു ഹോസ്പിറ്റൽ എവിടെയായിരുന്നു അ ഓക്കെ ഓക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണോ വരാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഭയങ്കര എന്താ പറയുക രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അ തലവേദനയുണ്ട് ജലദോഷം ഉണ്ട് ഇങ്ങനെ മൂക്കിൽ നിന്ന് വല്ലാണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ ജലദോഷമുണ്ട് അ അ ഓക്കെ ഓക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാൽ മതിയോ അ ഓക്കെ ഓക്കെ അ അ എന്നാൽ ടെസ്റ്റ് ചെയ്തിട്ട് നാളെ വരാമല്ലെ അങ്ങോട്ടേക്ക് അ ഓക്കെ ഓക്കെ അ ഓക്കെ ഓക്കെ ഓക്കെ മാം